എനിക്ക് എഴുതുവാൻ കഴിയുമെന്ന ബോധ്യം നേരത്തെ മുതൽ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ എഴുത്തിലേക്ക് കടന്ന വ്യക്തിയാണ് പക്ഷെ ഞാനൊരു തിരിച്ചറവിലെത്തി സോഷ്യൽ മീഡിയയുടെ വരവ് വളർച്ച സ്വാധീനം ഇത് എഴുത്തിനെ വായനയെ സ്വാധീനിക്കുന്നു അല്ലെങ്കില് വായനയെ തടസ്സപ്പെടുത്തുന്നുവെന്ന് ഞാൻ കൃത്യമായി മനസ്സിലാക്കി ഇതുകൊണ്ട് ഞാൻ എഴുത്ത് വേണ്ടെന്നുവെച്ചു കാരണം നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മളെഴുതുന്ന പുസ്തകങ്ങൾ ലേഖനങ്ങൾ എന്നിവ വായിക്കുവാൻ ആളില്ലെങ്കിൽ പിന്നെ എന്തിന് എഴുതണം ആളുകൾക്കിടയിൽ എഴുത്ത് കുറഞ്ഞതുകൊണ്ട് വായന കുറഞ്ഞതുകൊണ്ട് ഞാൻ എഴുത്ത് തൽക്കാലം വേണ്ടെന്നുവെച്ചു പുസ്തകങ്ങളുടെ പ്രസിദ്ധീകരണം വേണ്ടെന്നുവെച്ചു എന്നാൽ ലേഖനങ്ങൾ തുടങ്ങിയവ എഴുതുകയും ചെയ്തുകൊണ്ടിരുന്നു അത് പ്രസിദ്ധീകരണങ്ങളില് വന്നുകൊണ്ടിരുന്നവയാണ് ആയതിനാൽ എഴുത്ത് എന്നുള്ളത് എഴുതാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോഴും വായനക്കാരില്ലെങ്കിൽ അല്ലെങ്കില് വായന കുറയുന്നുവെങ്കിൽ വായന മരിക്കുന്നുവെങ്കിൽ പിന്നെ എഴുതുന്നതിൽ അർത്ഥമില്ല വായനക്കാരുണ്ടെങ്കിൽ മാത്രമേ ഒരു എഴുത്തുകാരന് എഴുതുവാൻ പ്രേരണയുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് എഴുത്തിൻ്റെ എഴുത്ത് ഇന്ന് നേരിടുന്ന ഒരു പ്രശ്നമായി ഇതിനെ കണക്കാക്കാൻ സാധിക്കുന്നു കൂടാതെ ഇന്ന് ഒത്തിരി എഴുത്തുകാർ രംഗത്തേക്ക് കടന്നുവന്നിട്ടുണ്ട് പഴയതു പോലെയല്ല പണ്ട് ഒരു തകഴിയോ ഒരു ചങ്ങമ്പുഴയോ ഒരു എം ടി വാസുദേവന് നായരോ അങ്ങനെ അറിയപ്പെടുന്ന കുറേ എഴുത്തുകാരാണുണ്ടായിരുന്നത് എന്നാൽ ഇന്ന് ചെറിയ ചെറിയ എഴുത്തുകാർ രംഗത്തേക്ക് വന്നു അച്ചടി മേഖലകള് ഓഫ്സെറ്റ് പ്രസ്സുകളൊക്കെ കടന്നുവന്നപ്പോൾ എഴുത്തുകാർക്ക് അവരുടെ അവർ എഴുതുന്ന കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കുവാനും പ്രചരിപ്പിക്കുവാനും സാധിക്കുമെന്ന സാഹചര്യം വന്നു എന്നാൽ അതിനനുസരിച്ചുള്ള വായനക്കാരില്ലാതെ വന്നുവെന്നുള്ളതാണ് പ്രശ്നം അതിൻ്റെയൊരു കാരണം എഴുതുന്നവയിലുള്ള മൂല്യങ്ങളുടെ കുറവ് അല്ലെങ്കില് അതിലെ അതിൽ ഉൾപ്പെടുന്ന കണ്ടൻറ് അതായത് ഉള്ളടക്കത്തിൻ്റെ കുറവായിരിക്കാം അതിന് പ്രേരണയായി വന്നത് എന്തായാലും ആളുകൾക്കിടയിൽ ഇന്ന് വായന കുറഞ്ഞിരിക്കുന്നു വായന മരിക്കുന്നുവെന്ന നിലവിളി ഇപ്പോൾ പ്രകടമാണ് ഇത് തുടങ്ങിയിട്ട് വർഷങ്ങളായി ഏതാണ്ടൊരു ഇരുപത് വർഷം വർഷത്തോളമായി ഈ നിലവിളി ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആയതിനാൽ അടുത്ത വിഷയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇന്ത്യയില് എഴുതുന്നതിന് എഴുതാൻ പാടില്ലാത്ത സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങൾ എന്തെങ്കിലുമുണ്ടോയെന്നുള്ളത് തീർച്ചയായുമുണ്ട് നമുക്ക് തോന്നുന്നതെല്ലാം എഴുതുവാനോ പ്രസിദ്ധീകരിക്കുവാനോ സാധ്യമല്ലല്ലോ സെൻസിറ്റീവായ വിഷയങ്ങളുണ്ടെന്നത് തീർച്ചയാണ് അത് എല്ലാ മേഖലകളിലും ഒരു പ്രതിപക്ഷമുണ്ട് അല്ലെങ്കിൽ നമ്മൾ എഴുതുന്നത് നമ്മൾ പറയുന്നത് ഉൾക്കൊള്ളുവാൻ മനസ് കാണിക്കാത്ത വിശാലമായ അല്ലെങ്കില് തുറന്ന മനസ്സില്ലാത്ത ആളുകൾ ധാരാളമുണ്ട് ഉദാഹരണം പൊളിറ്റിക്സ് ലെവലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പൊളിറ്റിക്സില് ബി ജെ പിക്ക് അനുകൂലമായി എഴുതിയാൽ കോൺഗ്രസ്സിന് ഇഷ്ടപ്പെടണമെന്നില്ല കോൺഗ്രസ്സിന് അനുകൂലമായി ഇഷ്ടപ്പെട്ടാൽ എഴുതിയാൽ ബി ജെ പിക്ക് ഇഷ്ടപ്പെടുകയില്ല ഇതാണല്ലോ സെൻസിറ്റീവായി വരുന്ന വിഷയങ്ങൾ മറ്റൊന്ന് നമ്മുടെ രാജ്യം പുലർത്തുന്ന മതപരമായ ചില ബാലിശമായ ചില കാഴ്ചപ്പാടുകളുണ്ട് അപ്പോൾ ഇത്തരം കാഴ്ചപ്പാടുകൾ വെച്ചുപുലർത്തുന്നത് കൊണ്ട് അതിനെ സംബന്ധിച്ചുള്ള ലേഖനങ്ങളോ കഥകളോ കവിതകളോ ഒന്നും എഴുതുവാൻ സാധിക്കുകയില്ല തസ്ലീമ നസ്രീൻ എന്നുള്ള എഴുത്തുകാരിയെക്കുറിച്ച് നമുക്കറിയാം അവരുടെ ലജ്ജ എന്ന നോവൽ എന്തെല്ലാം വിഷയങ്ങൾ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കിയെന്ന് നമുക്കറിയാം ഇത് എല്ലാ മേഖലകളിലും ഈ ഇത്തരം പ്രശ്നങ്ങളുണ്ടാവുക സാധാരണമാണ് അതൊരു സിനിമയായിക്കോട്ടെ എന്തുമായിക്കോട്ടെ എമ്പുരാൻ എന്നുള്ള സിനിമ മലയാളത്തിൽ ഇറങ്ങിയതിൻ്റെ ഫലമായി എന്തെല്ലാം കോളിളക്കങ്ങള് പ്രശ്നങ്ങളുണ്ടായിയെന്ന് നമുക്ക് നമുക്ക് വാർത്താമാധ്യമങ്ങളിലൂടെ അറിയുവാൻ സാധിക്കുന്നുണ്ട് ഇതേ പ്രശ്നം തന്നെയാണ് എല്ലാ മേഖലകളിലും എഴുത്തുകാർ നേരിടുന്നത് ആർക്കും എന്തും എഴുതുവാൻ കഴിയുന്നതല്ല ആയതിനാൽ എഴുത്തിൽ മിതത്വം പാലിക്കണം സത്യം സത്യമായി എഴുതുവാൻ കഴിയുകയില്ല നമ്മള് നമ്മുടെ വായനക്കാരെ പരിഗണിക്കുക കൂടി ചെയ്യണം അങ്ങനെ മാത്രമേ നമുക്ക് എഴുത്തുകൾ മുന്നോട്ട് പോവുകയുള്ളൂ സെൻസിറ്റീവായ അനവധി വിഷയങ്ങളുണ്ട് അതിലേക്കെല്ലാം ഇപ്പോൾ കടക്കുന്നില്ല തങ്ങൾ തങ്ങളുടേതായ ലിമിറ്റിൽ പരിമിതിയിൽ നിന്നുകൊണ്ട് എഴുതുവാനാണ് ഓരോ എഴുത്തുകാരനും ശ്രമിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത്